അംബികാസുധൻ മാങ്ങാട് എഴുതിയ എൻ മഗജ എന്ന പുസ്തകം ആദ്യം ഇഷ്ട്ടപ്പെടരുതെന്ന് തോന്നുകയും വായിച്ച് തുടങ്ങിയതിന് ശേഷം എന്നെ ഏറെ സ്വാധീനിക്കിയും ചെയ്തൊരു പുസ്തകമാണ് കാരണം കാസർഗോടുണ്ടായിട്ടുള്ള എൻഡോസൾഫാൻ ആക്രമണത്തെ കുറിച്ചായിരുന്നു ആ പുസ്തകത്തിൽ പരാ പരാമർശിച്ചിട്ടുള്ളത് അത് എനിക്കേറെ ഇഷ്ട്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സു മാറാൻ കാരണമായ ഘടകമെന്ന് പറയുന്നത് എൻഡോസൾഫാൻ ബാധിതരായ ആ കാസർഗോഡ് ജില്ലയിലെ ആളുകളുടെ പച്ചയായ ജീവിതം എൻമകജെ എന്ന പുസ്തകത്തിലൂടെ അംബികാസുധൻ മാങ്ങാട് വരച്ച് കാണിക്കുകയാണ് ശെരിക്കും പറഞ്ഞാൽ ഓരോ വരികളും വായിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ മുന്നിലേക്ക് ഒരു വെളുത്ത സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ വന്ന് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഘടകമാണ് എൻ്റെ മനസ്സു വായിക്കാൻ മനസ്സ് മാറ്റാൻ കാരണമായത്